ചെറുപ്പത്തിലുള്ള യാത്ര എന്ന് പറയുന്നത് മെയ്നായിട്ട് എനിക്ക് ഉണ്ടായത് സ്കൂളിൽ നിന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ ഊട്ടി കൊടയ്കനാൽ മൂന്നാർ സന്ദർശനത്തിന് കൊണ്ട് പോയതാണ് അത് നല്ലൊരനുഭവായിരുന്നു ഇഷ്ടം പോലെ കുട്ടികളൊക്കെയുണ്ടായിരുന്നു എല്ലാവരും അത് ആസ്വദിച്ചു എ അത് മറക്കാൻ പറ്റാത്തത് എന്ന് പറയാൻ മെയ്നായിട്ട് അതിൻ്റെ ബസ്സ് വഴിക്ക് വച്ചു യാത്രെടെ ഇടയിൽ കത്തുകയാണ് ഏ പെട്ടന്ന് തന്നെ ചാടി ഇറങ്ങി എല്ലാവരും ഡ്രൈവറുടെയും അതിലുള്ള ജോലിക്കാരുടെയൊക്കെ ഗംഭീരമായ പ്രയത്നത്തിൻ്റെ പേരിലത് സീ അവര് വെള്ളൊഴിച്ച് കെടത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ടാണ് യാത്ര പോയത് അതുകൊണ്ട് തന്നെ അതൊരു രണ്ടാം യാത്രയായി അതൊരു ഇതായി തോന്നി ജീവിതത്തിന് കടിഞ്ഞാണിടണ്ടൊരു ഘട്ടത്തില് വച്ചിട്ട് ഒരു അതൊരു വളവില് ഒരു കയറ്റത്തില് വച്ചിട്ടാണ് സംഭവിച്ചത് ആ യാത്ര ഒരിക്കലും നമുക്ക് മറക്കാനും പറ്റില്ല അതുപോലെ തന്നെ കൂട്ടുകാരോടൊക്കത്ത് വളരെയധികം ആർത്ത് ഉല്ലസിച്ച് തൂക്ക് പാലത്തിലൊക്കെ കയറി തണുപ്പൊക്കെ ആസ്വദിച്ച് ഏ കാലത്ത് പച്ചവെള്ളം പോലും തണുത്ത എന്താ പറയുക വടിയായി നിൽക്കുന്ന ഒരു ഒരു ഇതിലൂടെക്കെ കാണാനും ഇതൊക്കെ കഴിഞ്ഞു കണ്ടമാനം സ്ഥലങ്ങള് ഞങ്ങള് കണ്ടു അനുഭവങ്ങളുണ്ടായി ചെറുപ്പത്തിൽ അങ്ങനെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിട്ടുള്ള യാത്രകളായത് കൊണ്ട് അത് കൂടുതലായിട്ട് അത്ര വിവരിക്കാൻ ഒന്നുമില്ല ഇതൊക്കെയാണ് ഓർമ്മയിലുള്ള ഒരു യാത്ര